ഞങ്ങളുടെ ഗ്രാമീണ സമൂഹത്തിൽ ഒരുപാട് തല തരത്തിലുള്ള നൃത്ത രൂപങ്ങൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ നൃത്ത കലാ രൂപങ്ങൾ എക്കാലത്തും ജനപ്രീതി ആർജിക്കുന്ന ഒന്നാണ് ഒരുപാട് നൃത്ത രൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് കുച്ചിപ്പുടി ഭരതനാട്യം നാടോടി നൃത്തം അങ്ങനെ ഒട്ടനേകം നൃത്ത രൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോള് ഭരതനാട്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭരതനാട്യത്തിന് അഞ്ച് മിനിറ്റും കുച്ചിപ്പുടിക്ക് പത്ത് മിനിറ്റും എന്നുള്ള രീതിയിലാണ് ഉള്ളത് നൃത്ത രൂപങ്ങൾ എങ്ങനെയാണ് ജനപ്രീതി ആർജി ആർജിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും അധികം മനോഹരമായി വസ്ത്രം ധരിക്കുകയും അതിനുവേണ്ടി പരിശീലനം നേടുകയും നല്ല രീതിയിൽ കൈകളിലും കാലുകളിലും ഒക്കെ ചാലം ചായം പൂശുകയും കാലുകളിൽ ചിലക ചിലങ്ക അണിയുകയും അതുപോലെതന്നെ കമ്മലും മാലയും വളയും അതിനനുസരിച്ചുള്ള ബാക്കി വസ്ത്രധാരണമൊക്കെ ധരിക്കുമ്പോഴാണ് അത് കൂടുതൽ ജനപ്രീതി ആർജിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നൃത്ത രൂപമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നടോടിനൃത്തവും അതുപോലെത്തന്നെ കേരള നടനവും ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെയാണ് ഈ ഓരോ നൃത്തങ്ങളിലും ഒരോരോ പാട്ട് അവര് തിരഞ്ഞെടുക്കുന്നതാ ഒരു പാട്ടിന് ഒരു കഥ നമ്മുടെയടുത്തു പറയാനുണ്ടാവും ഒരു സന്ദേശം നമ്മുടെയടുത്തു പറയാനുണ്ടാവും ആ സന്ദേശം ജനപ്രീതി ആർജിച്ച് അത് അ പാട്ടിലൂടെ ചലനങ്ങളും അതുപോലെ തന്നെ നൃത്ത രൂപങ്ങളായിട്ട് മുദ്രകളായിട്ട് നമ്മുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ് പല തരത്തിലുള്ള കൈകളുടെ ചലനവും അല്ലെങ്കിൽ തലയുടെ ചലനവും കണ്ണുകളുടെ ആട്ടവും കാലുകളുടെ ആട്ടവും ഒക്കെ ഒരുപോലെ മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു അ പ്രക്രിയയാണ് അപ്പോള് പിന്നെ ജനപ്രീതി ആർജിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഒന്നിച്ച് ചേർന്ന് ആളുകൾ നൃത്തം ചെയ്യുന്ന അവസരങ്ങൾ നമുക്ക് പലതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പോള് സംഘനൃത്തമെന്നൊക്കെ പറയുമ്പോള് അഞ്ചോ അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതലോ കൂടി ചേർന്നുള്ള ആളുകൾ പരിശീലനം നേടി അവരൊത്തൊരുമിച്ച് അത് ആൾക്കാർടെ മുമ്പിൽ കാഴ്ചവെയ്ക്കുക കാണിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോള് ഉദ്ധാഹരണത്തിന് ഓണമാകുമ്പോൾ തിരുവാതിര തിരുവാതിര കളിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലെ അമ്മമാർക്കൊക്കെ ഉണ്ട് ഒരു പത്തോ പതിനഞ്ചോ ആളുകൾ ചേർന്ന് വട്ടത്തിൽ നിന്ന് നല്ല ഭംഗിയിലുള്ള സെറ്റ് സാരിയും അതുപോലെതന്നെ മുടിയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടി അല്ലെങ്കിൽ തുളസി കതിരൊക്കെ വെച്ച് നല്ല രീതിയിൽ അവർ ഒരുമിച്ച് നല്ല ആട്ടം ആട്ടം പോലെയുള്ള ശരീരഭാഗം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചാരിക്കൊണ്ട് വളരെയധികം മനോഹരമായ രീതിയിൽ അവർ പഠിക്കുകയും അത് കാണിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് വളരെയധികം മനോഹരമായിട്ട് ഓണ സ ഓണ അവസരത്തിൽ ഓരോ ജില്ലകളിലും നമുക്കീ തിരുവാതിരക്കളി കാണാനായിട്ട് സാധിക്കും അതുപോലെതന്നെ പറയുകയാണെങ്കിൽ ഇപ്പോള് കല്യാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഡി ജെ പാർട്ടി ഡി ജെ പാർട്ടിയെന്ന് പറയുമ്പോള് പല തരത്തിലുള്ള സിനിമാറ്റിക് സോങ്സ് സിനിമാ പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡാൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെതന്നെ സുംബ സുംബ എന്ന് പറയുമ്പോള് തടി കുറയ്ക്കാൻ അല്ലെങ്കിൽ ശരീര ഭാരം കുറയ്ക്കാനുള്ള രീതിയിലായിട്ടുള്ള ഡാൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും